പിന്നെ തയ്യലിലാണെങ്കിൽ തയ്യൽ മെഷ്യൻ ഉണ്ട് മെഷ്യൻ ഇടയ്ക്ക് ഓയിലിട്ടു കൊടുക്കണം പിന്നെ പിന്നെ മിഷ്യൻ്റെ ബോബന് നൂലിടാനായിട്ടുള്ള ബോബന് ബോബൻ കേസ് അത് ഇടയ്ക്കൊക്കെ മാറേണ്ടിവരും പിന്നെ സൂചി നിങ്ങൾക്ക് മേടിക്കുന്ന സാധനങ്ങളാ പിന്നെ കൂടുതലായിട്ടും മേടിക്കേണ്ടെന്നുവെച്ചാൽ നൂല് അപ്പം പല കളറിൽ ഡ്രസ്സുകള് നമ്മള് തയ്ക്കുന്നതാണല്ലോ ഇപ്പം തയ്ക്കുമ്പഴ്ത്തേക്ക് അതിന് വേണ്ടിയിട്ടുള്ള പല കളറിൽ നൂലുകൾ വേണ്ടിവരും സെയിം നൂലിട്ട് തൈച്ചാലല്ലേ അതിനുള്ള ഭംഗിയൊക്കെ ഉള്ളു ഇപ്പം ചുരിദാറിനൊക്കെ തയ്ക്കുമ്പഴ്ത്തേക്കും സിബ്ബ് വെച്ച് തൈക്കാൻ പിള്ളേർക്ക് ഫ്രോക്ക് തയ്ക്കുമ്പോൾ സിബ്ബ് അങ്ങനെ സിബ്ബുകളുടെ ആവശ്യം വരുന്നുണ്ട് പിന്നെ നമ്മളുടെ നല്ല ഫാൻസിയായിട്ടൊക്കെ തയ്ക്കാൻ നല്ല ചില ചില ലൈസുകളൊക്കെ മേടിക്കാറുണ്ട് നല്ലരീതിയില് അല്ലെൽ പിള്ളേർക്കക്കെ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പഴത്തേക്കും ലേസ് ഒക്കെ വയ്ക്കും പിന്നെ ചെറിയ ചെറിയ ഫ്ളവറുകളൊക്കെ മേടിക്കാണ്ട് ചിലതൊക്കെ നൂല് നല്ല തുണിയെൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ചിലതൊക്കെ ആണെങ്കിൽ നമ്മള് എംബ്രോയ്ഡറിങ്ങില് സ്റ്റിക്കറായറ്റൊക്കെ പോയാൽ കിട്ടും അതൊക്കെ മേടിക്കാറുണ്ട് ഫ്ലവർ ഇത് പിള്ളേർടെക്കെ ഉടുപ്പിൽ ഒട്ടിക്കാനൊക്കെ ഒട്ടിച്ചിട്ട് അത് തയ്ക്കാനായിട്ട് അതൊക്കെയാണ് കൂടുതലും മെച്ചപ്പെടുത്താൻ മേടിക്കുന്ന അങ്ങനൊക്കെ സിബ്ബും നൂല് പലകളറിലെ നൂല് ഒക്കെ വേണമല്ലോ അത് നമ്മളിപ്പം കറുപ്പ് ഡ്രസ്സ്ലാണെങ്കിൽ വെള്ളനൂല് അല്ലെങ്കിൽ വേറെ കളറ് നൂലിട്ട് തയ്ച്ചാൽ ഒരു ഭംഗി ഉണ്ടാവത്തില്ലല്ലോ അപ്പോൾ അതിന് കറുപ്പ് തന്നെ വേണം അപ്പം വേറെ ലൈറ്റ് കളറൊക്കെ ആകുമ്പോൾ ആ സെയിം കളറുണ്ടങ്കിലേ അതിനൊക്കെ ഒരു ഭംഗി ഉള്ളു നല്ല നീറ്റായിട്ട് പിന്നെ ഉള്ളത് പിന്നെ ലോക്ക് മെഷ്യൻ ഇല്ലാത്തട് കൊണ്ട് മാത്രേയുള്ളു അപ്പോൾ അതിനൊക്കെ നമ്മള് വേറെ തയ്ച്ച് പോകത്തക്ക രീതിയിലൊക്കെ തയ്ച്ച് നല്ല വൃത്തിയായിട്ട് എടുക്കാറുണ്ട് കൂടുതലും നമ്മള് പല കളറിലുള്ള നൂലുകളാണ് കൂടുതലായിട്ടും നമുക്ക് വേണ്ടിവരുന്നത് പിന്നെ ലൈസും പല രീതിയിൽ തൈക്കണമെങ്കിൽ മോഡലൊക്കെ വെച്ച് തൈക്കാനായിട്ട് അങ്ങനെ പിള്ളേരുടെ സിബ്ബ് പിള്ളേരുടെ ഉടുപ്പിൻ്റെ സിബും അങ്ങനെ ഉള്ള സാധനങ്ങളെ പിന്നെ ബട്ടൻസ് ഷോ ബട്ടൻസ് അങ്ങനെ ഒക്കെ നമ്മള് മേടിക്കാറുള്ളത് പിന്നെ തുണിയാണെലും നല്ല നല്ല തുണികളൊക്കെ കിട്ടുമ്പോൾ അതിന് അനുസരിച്ചുള്ള നൂലുകള് മേടിക്കണം തുണി എങ്ങനെയാണോ അതനുസരിച്ചുള്ള നൂല് നമുക്ക് ആവശ്യമുള്ളത് നല്ല രീതിയിൽ തന്നെ തൈക്കാനായിട്ട് പറ്റും നമ്മൾ സെയിം നൂലൊക്കെയിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗി ആയിട്ടും തൈക്കാൻ പറ്റും ആ തുണിയിലൊക്കെ ഉണ്ട് അതിൻ്റെതായ ഒരു ഭംഗി ഒക്കെ പിന്നെ കൂടുതല് ഉപകരണങ്ങൾ എന്ന് വെച്ചാൽ മെഷ്യൻ ഒരുപ്രാവശ്യം നമുക്കുണ്ടല്ലോ പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഇടയ്ക്കു വല്ല ഇതും വന്നാല് മാത്രമേ അതിൻ്റെ സാധനങ്ങൾ എല്ലാം മാറ്റേണ്ടി വരുത്തുള്ളൂ അതില് കുഴപ്പം ഇല്ലാതെ കുറെ നാള് മഷീൻ ഒക്കെ നല്ലരീതിയിൽ നമ്മള് ഉപയോഗിക്കുമ്പത്തേക്കും വലിയ കുഴപ്പമില്ലാതെ ഒക്കെ പോകുന്നുണ്ട് വലിയ മറ്റേണ്ടിയൊന്നും മാറ്റാൻ അങ്ങനെ കേടുപാടൊന്നും വരാറില്ല നമ്മള് ഓയിൽ ഇട്ടു കൊടുക്കണം പിന്നെ നല്ല ബോബൻ കേസ്സും നല്ല ബോബനും പിന്നെ തുരുമ്പു പിടിക്കാത്ത ബോബനൊക്കെ വേണം വേണം അത് ബോബനൊക്കെ ഇടയ്ക്കൊക്കെ മാറണം കാരണം തുരുമ്പൊന്നും പിടിച്ചുകഴിഞ്ഞാൽ പിന്നെ തൈക്കാനൊക്കെ പാടാന് അപ്പോൾ മെഷീൻ എല്ലാം കേടായിപ്പോകത്തില്ലേ അങ്ങനെ നല്ല ബോബനൊക്കെ മേടിച്ചു പുതിയത് നല്ല രീതിയിൽ തന്നെ അത് നമ്മള് അത് മാനേജ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തുരുമ്പൊന്നും പിടിച്ചുപോകത്തില്ല നല്ല രീതിയിൽ തൈക്കാൻ പറ്റും കമ്പിളി കൊണ്ടൊന്നും ഞാൻ തൈക്കാറില്ല അല്ലാതെ തന്നെ നമ്മള സാധാരണ ഡ്രസ്സ് പിള്ളേർക്ക് ഫ്രോക് ചുരിദാറ് നൈറ്റി അങ്ങനെ ഉള്ളതൊക്കെ ഞാന് തൈക്കുന്നുള്ളു അതൊക്കെ തൈക്കാനായിട്ട് ഇങ്ങനെ ഉള്ള സാധനങ്ങള് ലയ്സുകളും അങ്ങനൊക്കെ മേടിക്കേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ ബട്ടൻസ് ചെറിയ പിള്ളേർക്കക്കെ ആണെങ്കില് ചെറിയ ഷർട്ട് പോലത്തെ ഒക്കെ തൈക്കുമ്പോൾ ബട്ടൻസ് വേണം പിന്നെ സാരിക്ക് ബ്ലൗസ് സാരി ബ്ലൗസ് തൈക്കും കൊളുത്ത് അത് ഇങ്ങനെ സ്റ്റീലിൻ്റെ കൊളുത്തൊക്കെ അതൊക്കെയാണ് വേണ്ടിവരുന്നതും നമുക്ക് പ്രത്യേകവായിട്ട് കൂടുതലായിട്ട് നമുക്ക് വേണ്ടി വരുന്നത് നല്ല നൂലാണ് നൂല് കൊളുത്ത് സിബ്ബ് പിന്നെ ലയസ്സുകള് ഇതൊക്കെയാണ് ഞങ്ങള് കൂടുതലായിട്ടും മേടിക്കാറുള്ളത് മെച്ചപ്പെടുത്താൻ പുതിയ മോഡലൊക്കെ തൈച്ചൊക്കെ നോക്കാറുണ്ട് കൂടുതൽ മെച്ചപ്പെടുത്താൻ മേടിക്കുന്നതങ്ങനെ പിന്നെ ഇപ്പം പുതിയ ഡിസൈനില് ചുരിദാറിൻ്റെ വരെ എംബ്രോയ്ഡറിയൊക്കെ ചെയ്തു നെയ്തുപോലെ കിട്ടുന്നതൊക്കെ അതൊക്കെ കിട്ട മേടിക്കാൻ കിട്ടാറുണ്ട് അതൊക്കെ നമുക്ക് കിട്ടും മേടിക്കാനായിട്ട് നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ തൈക്കാനായിട്ട് പറ്റും നൂലൊക്കെ നല്ല നല്ലരീതിയിലൊക്കെ മേടിച്ച് വെക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊക്കെ നല്ല രീതിയിൽ തൈക്കാനൊക്കെ പറ്റും നല്ല ഡിസൈനൊക്കെ ചെയ്യുവാണെങ്കിലേ അതിന് പല കളറിലെ നൂല് വേണം എംബ്രോഡറി വർക്ക് ചെയ്യുവാണെങ്കില് കൈ കൊണ്ടാണെങ്കിലും ചെയ്യാൻ പറ്റും അങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ നൂല് പല പല ടൈപ് നൂലുണ്ടല്ലോ എംബ്രോഡറി നൂലുണ്ട് കൈകൊണ്ട് തൈക്കുന്നത് അല്ലാത്ത നൂലുണ്ട് നല്ല നൂല ഒക്കെ ഉപയോഗിച്ച ആണെങ്കില് നല്ല രീതിയില് നല്ലത്പോലെ നമുക്ക് തൈക്കാൻ പറ്റും